ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ വയനാട് ആരായിരുന്നു ഹലോ കേൾക്കുന്നില്ലേ

അ എത്രാം വയസ്സിൽ പഠിക്കുവാ എത്രാം ക്ലാസിൽ പഠിക്കുന്നെ ആയിരുന്നു രണ്ടാം ക്ലാസ്സിൽ അല്ലേ യുകെജി പഠിക്കുന്ന കുട്ടിക്ക് വേറെ എവിടെയെങ്കിലും ചേർന്നതാണോ ഇപ്പോ ഇത്രയും ദിവസമായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട് അതെന്താ വൈകിയത് മാറ്റി മാറ്റി ചേർക്കാൻ വേണ്ടിയിട്ടാ അതുകുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല അവിടുന്ന് നമ്മളൊരു ടീസി മേടിക്കണം അവിടെ ചേർത്തതാണല്ലോ അപ്പൊ അവിടുന്ന് നമ്മള് ഇങ്ങന ടീസി മേടിച്ചിട്ട് വേണം ഇപ്പുറത്ത് വന്ന് ചേരാൻ വേണ്ടീട്ട് അ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കില് ഡോണേഷൻ്റെ കാര്യം ഞാൻ പറയാം ഡോണേഷൻ നമുക്കൊരു അമ്പതിനായിരം രൂപ വരും ഫീസ് ഒരു വർഷത്തേക്ക് അ അമ്പതിനായിരം രൂപ വരും കൗണ്ട് ചെയ്യാൻ അങ്ങനെ പറ്റില്ല ഇത് നമ്മുടെ മാനേജ്മെന്റിൻ്റെ ഒരു തീരുമാനം ആണ് നമുക്ക് ബസ് ബസ് ഉണ്ടാവും പിന്നെ യൂണിഫോമ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം സെപ്പറേറ്റ് ക്യാഷ് തന്നിട്ട് വേണം മേടിക്കാന് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യൂണിഫോമ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടു തരുന്നുണ്ട് പക്ഷേ അതിനുള്ള ക്യാഷ് തരണം പിന്നെ ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മള് തരും പക്ഷേ അതിൻ്റെയും ക്യാഷ് തരേണ്ടി വരും അതെ പിന്നെ എൽകെജി അല്ല പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അല്ലേ അവർക്ക് ഡോണേഷൻ വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ പിന്നെയോരോ ആക്ടിവിറ്റീസിനനുസരിച്ച് പൈസ വരും ഏതെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ പൈസ കാര്യങ്ങളൊക്കെ വരും ഹലോ അതെ പിന്നെ ബസ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബസ്സിന് നിങ്ങള് പ്രത്യേകിച്ച് പൈസ ഒന്നും തരേണ്ടി വരില്ല നിങ്ങളുടെ വീട് വീടെവിടെയായിരുന്നു പനവല്ലി അതെ ഞങ്ങൾ മാനന്തവാടി പനവല്ലി ആ ഭാഗത്തേക്ക് ബസ് ഇട്ടിട്ടുണ്ട് ബസ് നമ്മുടെ അങ്ങോട്ടേക്ക് റൂട്ടിൽ ഓടുന്നുണ്ട് അപ്പം കറക്റ്റ് കുട്ടികൾ കേറി അവിടുന്ന് നമ്മള് രാവിലെ വരുന്നത് എട്ടര ആകുമ്പോഴത്തേക്കും നമ്മള് അവരുടെ വണ്ടി ഇവിടെ എത്തും അതിനകത്ത് കേറി കുട്ടികള് ഒരു ഒൻപത് ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നതായിരിക്കും പത്ത് മണിയാകുമ്പോഴത്തേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും വണ്ടി ഇവിടെ വരും അപ്പോൾ ഒന്ന് നിങ്ങൾ വന്ന് കൂട്ടിയിട്ട് പോയാൽ മതി നാല് മണിയാകുമ്പോഴേക്കും നിങ്ങള സ്ഥലത്ത് എത്തിയിരിക്കും വണ്ടി എങ്ങനെ ഉണ്ടെങ്കിലും നാല് അതെ ടീച്ചേർസ് ഉണ്ടാവും പിന്നെ ഡ്രൈവറ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഡ്രൈവറാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കുവൊന്നും വേണ്ട കറക്റ്റായിട്ട് അവർ എത്തിച്ചോളും ടീച്ചർ ഉണ്ടാവും വണ്ടിയിൽ പിന്നെ പെട്ടെന്ന് അ ഓക്കേ ഓക്കേ ഏറ്റെടുക്കാം അത് വിഷയം ഒന്നുമില്ല സാറിന് പേടിക്കുവൊന്നും വേണ്ട നമ്മള് തന്നെ ഏറ്റെടുത്തോളും അതെ അങ്ങനെ ആണെങ്കിൽ നാളെ വന്നിട്ട് അഡ്മിഷൻ എടുത്തോളൂ അ ഓക്കേ